മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ റേഡിയോയിലും പിന്നെ അങ്ങനെയുള്ള ടെലിവിഷൻ പത്രങ്ങളിൽ അതിലൊക്കെ വരുന്നത് എന്ന് പറയുമ്പം നല്ല വിശദീകരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ആയിട്ടാണ് വരുന്നത് അതിൻ്റെ അകത്ത് എന്ന് പറയുമ്പോൾ എല്ലാം നല്ല വിശദീകരിച്ച് എങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് എല്ലാം കറക്റ്റ് മനസ്സിലാകുന്ന രീതിക്കാണ് പത്രങ്ങളിലും ടെലിവിഷനിലൊക്കെ വരുന്നത് വാർത്തയിലോക്കെ വരുന്നത് പണ്ട് എന്നൊക്കെ നമ്മളിൽ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഭാഷയിൽ നമ്മൾ എന്താ ഇടയ്ക്ക് ഇംഗ്ലീഷ് കയറ്റും അങ്ങനെ മംഗ്ലീഷ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇതെന്ന് പറയുമ്പോൾ കറക്റ്റ് രീതിയിൽ എങ്ങനെയാണ് അച്ചടിച്ചിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഭാഷ അവരുടെ രീതി എന്തൊക്കെയാണെന്ന് പണ്ടൊക്കെ എന്ന് പറയും നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഒക്കെ ഒരു മോഡലും ഈ പത്രങ്ങളിൽ വരുന്നതും ടി വിയിൽ വരുന്നത് ഒക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലാണ്ട് നമ്മൾ പറയുന്നതു പോലെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇംഗ്ലീഷ് കയറ്റും പിന്നെ കുറെ മലയാളം പറയും അത് നമ്മളെ നോർമൽ ആയിട്ട് കുറച്ചു വാക്കുകളായിരിക്കും പറയുക മറ്റേതെന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് നമ്മൾ കേൾക്കാത്ത കുറെ വാക്കുകളും അങ്ങനെയൊക്കെയായിരിക്കും ഉണ്ടാകുന്നത് നമുക്ക് കറക്റ്റ് മനസ്സിലാകുന്ന രീതിക്കൊക്കെ ആയിരിക്കും അവർ പറഞ്ഞു തരുന്നത്